ഹലോ നമസ്കാരം ഇത് രജിസ്ട്രേഷൻ ഓഫീസല്ലേ എൻ്റെ പേര് ആതിര എന്നാണ് അപ്പം എൻ്റെ ഒരു റിലേറ്റീവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ആളുടെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ് പക്ഷേ അതിനകത്ത് ആളുടെ ഡേറ്റ് ഓഫ് ബെർത്തിലും മരിച്ച ടേറ്റും വ്യത്യാസമുണ്ട് അപ്പം അത് മാർജിനായിട്ട് ഞാൻ ഒരപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ടാണ് വിളിച്ചത് അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞതു പോലെ പഞ്ചായത്തായിട്ട് ഞാൻ ബന്ധപ്പെട്ടായിരുന്നു അപ്പം പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ആളുടെ എന്താ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് വരാനാണ് പറഞ്ഞത് പിന്നെ വില്ലേജിലൊക്കെ പോയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വായി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനാവശ്യമായ രേഖകൾ എന്തെങ്കിലും വേണോ ആളുടെ രേഖകൾ എന്താണ് വേണ്ടതെന്നു വെച്ചാൽ അതും കൂടി ഒന്നു പറയണേ പിന്നെ അക്ഷയ സെൻ്ററിൽ പോയി ചെയ്യണോ അതോ ഓഫീസിൽ തന്നെ വന്നിട്ടാണോ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് ആളുടെ പ്രോപ്പർട്ടി എൻ്റെ പേരിലേക്ക് മാറ്റാനായിട്ടായിരുന്നു അപ്പം അതിനു ചെന്നപ്പോഴാണ് പഞ്ചായത്തിൽ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഇപ്പം അതു മാറ്റാൻ പറ്റത്തില്ല അതിനുള്ള രേഖകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് അതായത് അത് പാസാക്കിയ ഡോക്ടറിൻ്റെ കൺസേ കൺസേണും വേണം പിന്നെ ഹോസ്പിറ്റലിൻ്റെ തിരുത്തലും വേണമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ആധാരം എൻ്റെ പേരിലേക്ക് മാറ്റാനായിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനിയപ്പം എന്താ ചെയ്യേണ്ടത് എന്നൊന്നു പറഞ്ഞു തരാമോ ഓ ഓക്കെ ഓക്കെ ആ ശരി ഓക്കെ സാർ താങ്ക് യൂ വിവരങ്ങൾ നൽകിയതിനു നന്ദി